രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന പദ്ധതികളാണ് ഹരിത കേരളം ആർദ്രം ലൈഫ് തുടങ്ങിയ പദ്ധതികൾ ജലവിഭ സംരക്ഷണവും മാലിന്യ സംസ്കരണവും കോർത്തിണക്കിയ ഹരിത കേരളം എന്ന പദ്ധതി ഉയർന്ന ജീവിത സൗകര്യവും ജീവനോപാധിയും ഉറപ്പാക്കുന്ന ലൈഫ് പദ്ധതി തുടങ്ങിയ പദ്ധതികൾ ഇന്ന് സർക്കാർ നമുക്ക് മുമ്പിൽ കൊണ്ടുവരാൻ പോവുകയാണ് മാലിന്യ സംസ്കരണം അതേപോലെ ഉയർന്ന ജീവിത സൗകര്യം ജീവനോപാധിയും ഉറപ്പാക്കുന്ന പദ്ധതികൾ നമുക്ക് ഏറ്റവും ജീവിതത്തിൽ കൊണ്ടുവരേണ്ട വലിയ പദ്ധതി തന്നെയാണ് കാരണം ഇന്ന് മാലിന്യങ്ങളുടെ മാലിന്യകൂമ്പാരങ്ങൾ വർധിച്ചുകൊണ്ടിക്കയാണ് അതേപോലെ സ്വന്തമായി പാർക്കാൻ പാർപ്പിടങ്ങളില്ലാത്ത ഒരുപാട് കോടി ജനങ്ങൾ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ട് ജീവിക്കുന്നുണ്ട്